പല കാലാവസ്ഥകളിലും മാറി മാറി വരുന്ന കാലാവസ്ഥകളിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ സൂക്ഷിച്ചതുമായ ചെടികളെ വരുത്തേണ്ട മാറ്റവും മുൻകരുതലും എന്നു പറയുന്നത് ഈ വരുന്ന കാലഘട്ടങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിൽ വെയിൽ കിട്ടാത്ത ഒരു ചെറിയ തണലെല്ലാം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ചെടികളെ മാറ്റി വയ്ക്കുക്കകയും അവയ്ക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുത്ത് അവയെ പരിചരിക്കുകയും ചെയ്യേണ്ടതാണ് മഴക്കാലത്ത് വരുന്ന വളരുന്ന ചെടികളാണെങ്കിൽ നല്ല രീതിയിൽ മഴ കിട്ടാതേെയും അത്യാവശ്യം മഴ കിട്ടുകയും അവയെ നല്ല രീതിയിൽ പരിചരിക്കുകയും ചെയ്യുന്ന മറ്റു സ്ഥലങ്ങളിലേക്കും അതിനെ മാറ്റി വയ്ക്കേണ്ടതാണ് അതുപോലെതന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുമ്പോൾ അല്ലെങ്കിൽ മഴ ലഭിക്കുമ്പോൾ അതിന്റെ വേരുകൾ ചുങ്ങി പോകാനും ചീഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ മഴക്കാലഘട്ടങ്ങളിൽ വളർന്ന് വരുന്ന ചെടികളെ മാറ്റി പാർപ്പിക്കുവാൻ നാം ഓർക്കേണ്ടതാണ്